ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ച് പത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ട് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഒൻപത് അഞ്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന്